ഞാൻ സ്വന്തമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് മുതൽ ദൂരപ്രദേശങ്ങളിൽ എവിടെയായെങ്കിലും പോവുക ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായമാണ് ഗൂഗിൾ മാപ്പ് എന്ന ആപ്പ് വഴി വളരെ അധികം എനിക്ക് ഉപയോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദൂര സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ തനിയെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് യാത്ര ചെയ്യുന്നത് ഈ ആപ്പ് വഴി വളരെ അധികം തരങ്കം സൃഷ്ടിച്ച് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഇപ്പം യുവതലമുറയ്ക്ക് ഏറ്റവും അധികം അറിവില്ലാത്തെ ഒരു കാര്യമാണ് സ്ഥലങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അവിടേക്കെത്തിച്ചേരേണ്ട വഴികളെ പറ്റിയും അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഈ ഒരു പ്രശ്നം ഏറെക്കുറെ ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് ഏറ്റവും കൂടുതല് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴികൾ അവർ കാണിക്കുന്നുണ്ട് ഈ ഒരു ആപ്പ് വഴി എനിക്ക് നേരിട്ട് ലഭിച്ചിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ചില സമയം സ ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അല്ല ഇവ എത്തിച്ചേരുന്നതും അതിൻ്റെ അടുത്തുള്ള വേറേല് സ്ഥലങ്ങളോ അല്ലെങ്കിൽ തെറ്റായൊരു സ്ഥലങ്ങളിലോ ആയിരിക്കും അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം മൂലമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തേലും സാങ്കേതിക തകരാറ് മൂലമാണോ എന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല എന്നാലും കുറെ പേര് ഈ ഒരനുഭവം പങ്കുവെച്ചതായി അറിഞ്ഞിട്ടുണ്ട് പിന്നെ മൊത്തം നോക്കുവാണെങ്കിൽ ഈ ഒരാപ്പ് വഴി നല്ല ഉപയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഗതാഗതം നമുക്ക് തടസ്സമില്ലാതെ നടത്താൻ ഈ ഒരു മൊ ഗൂഗിൾ മാപ്പ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരാപ്പ് വഴി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മള് വാർത്തകൾ കാണുന്നതാണല്ലോ പണ്ട് നടന്ന ഒരു വാർത്തയാണ് ഗൂഗിൾ മാപ്പുപയോഗിച്ച് വണ്ടി ഓടിച്ച് ഒരോ ഒരു ഫാമിലി വെള്ളത്തിൽ പോയി മരിച്ചത് ഒക്കെ ഇങ്ങനെ പല വാർത്തകും നമ്മൾ കാണുന്നൊണ്ടപ്പം ഈ ആപ്പിൻ ഈ ആപ്പ് വഴി നമുക്ക് തെറ്റായ വിവരങ്ങളും കിട്ടാം ശരിയായതും കിട്ടാം എന്നാൽ ഇതിൻ്റെ ഉപയോഗം നോക്കുവാണെങ്കിൽ ഓവറോൾ ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം യൂസ് ഫുള്ളാണ് സംഭവിച്ചിരിക്കുന്നത്